സമൂഹത്തിലെ പല കുറ്റകൃത്ത്യങ്ങളുടെ കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരാത്തതിന് മെയിൻ കാരണം ഉള്ള കാരണം ഇന്നത്തെ സമൂഹത്തിൻ്റെ പോക്കാണ് കാരണം ഇന്നത്തെ സമൂഹം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും നമ്മുടെ സ ഉള്ളവരുടെ സമ്മർദ്ധം മൂലമാണ് പല കുറ്റകൃത്യങ്ങളും പുറത്ത് വരാതെ ഒതുക്കി തി ഒതുക്കി വിടുകയാണ് അതുകൊണ്ട് തന്നെ പല കുറ്റകൃത്യങ്ങളും നമ്മൾ പൊതു സമൂഹം അറിയാതെ വരികയും പിന്നീട് അതിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു വലിയൊരു ചൂഷണമായിട്ട് മാറുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ പുറത്ത് വരാതിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ അക്രമങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുകയും അതിൽ നിന്ന് ഒട്ടേറെ മരണം സമൂഹത്തിൽ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കും കാരണമാകുന്നു അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ചില പല പല പ്രവണതകൾ മൂലം കുറ്റങ്ങളും വിവരങ്ങളും പുറത്ത് വരാതിരിക്കുകയും അതിൽ നിന്ന് ഇരിക്കുന്നത് മൂലം പല തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിൽ നിന്ന് കുറ്റകൃത്യങ്ങൾ പുറത്ത് വരാതിരിക്കുന്നതിൽ നേരെ പങ്കും വഹിക്കുന്ന ഇന്നത്തെ നിയമവ്യവസ്ഥയാണ് നിയമവ്യവസ്ഥ പല തരത്തിലുള്ള കുറ്റ കൃത്യങ്ങളും ഇന്ന് സമൂഹത്തിലേക്ക് പുറത്ത് വിടാതെ ഒതുക്കി വിടുകേം അതിൽ നിന്ന് സമൂഹത്തിൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നേനും കാരണമാക്കുന്നുണ്ട് അത് മൂലമാണ് ഇന്ന് സമൂഹത്തിൽ പല കുറ്റകൃത്യങ്ങളും പുറത്ത് വരാതെ ഒതുങ്ങി പോകുന്നത് നിയമങ്ങൾ നേരെ ആയില്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഇതുപോലെ തന്നെ സംഭവിച്ചോണ്ടിരിക്കും പിന്നെ വാർത്താ മാ വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്ത് എത്തിക്കുന്നത് ഒളി ക്യാമറകൾ വഴിയും പല സാമൂഹിക മാധങ്ങൾ ഉപയോഗിച്ചാണ് അതിൽ നിന്ന് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് വാർത്താ മാധ്യമങ്ങൾ പുറത്ത് എത്തിക്കുന്നത് അത് പലപ്പോഴും നേരെയുള്ള വാർത്തകൾ ആയിരിക്കണമെന്നില്ല അത് നേരെ വളച്ച് ഒടിച്ചാണ് വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ പുറത്തെത്തിക്കുന്നത് അങ്ങനെ വന്ന് അങ്ങനെ വരുമ്പോൾ വാർത്തകൾ നമ്മൾ ഒരു കേ നടക്കുന്ന വന്ന വാർത്തയാരിക്കേല നമ്മൾ പുറത്ത് കേൾക്കുന്നത് പുറത്ത് കേൾക്കുമ്പോൾ ആ വാർത്ത സമൂഹത്തിൽ നമ്മൾ സമൂഹത്തിൽ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അത് വരുമ്പോൾ നടന്ന വാർത്തയെ നമ്മൾ വീണ്ടും ചുറ്റി ചുറ്റി വളച്ച് വിടുകയാണ് അത് സമൂഹത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് സമൂഹത്തിൽ സമൂഹത്തിൽ വാർത്താ മാധ്യമങ്ങളുടെ പ്രാധാന്യം വളരെ അധികമാണ് അങ്ങനെ വരുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന വാർത്തകളും നല്ലതായിരിക്കണം നല്ല വാർത്തകൾ നൽകാത്തത് മൂലമാണ് സമൂഹത്തിൽ പല തരത്തിലുള്ള അക്രമങ്ങളും അനീതികളും നടക്കുന്നത് ഇതിൽ നിന്നും രാഷ്ട്രീയപരമായ പ്രവർത്ത പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പല വാർത്താമാധ്യമങ്ങളും രാഷ്ട്രീയപരമായിട്ടാണ് നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ കുറ്റകൃത്യങ്ങളൊന്നും പുറത്ത് വരാതെ ഒതുക്കി വിടുന്നതിനും വാർത്ത മധ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നത് മൂലം സമൂഹത്തിലെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുകേം സമൂഹത്തിൽ യുവജനങ്ങളുടെ ആണേൽ പോലും പോലും ആരും കുറ്റകൃത്യങ്ങളിലേക്ക് ചെല്ലുന്നതിനും കാരണമാകുന്നു